ഞങ്ങളുടെ പ്രദേശത്ത് ആഘോഷിക്കപ്പെടുന്ന പ്രധാന ഉത്സവങ്ങളെന്നു പറയുന്നത് ഏറ്റവും ആദ്യമായിട്ടുള്ളത് ഓണമാണ് ഓണമെന്നു പറയുന്നത് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണല്ലോ അപ്പോള് ഓണം എല്ലാവരും നല്ല രീതിയില് കൊണ്ടാടാറുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് ഈസ്റ്റര് പിന്നെ വിഷു അങ്ങനെ ഒട്ടേറെ ഉത്സവങ്ങൾ പ്രദേശത്ത് ആഘോഷിക്കപ്പെടാറുണ്ട് അതിലാദ്യം നമുക്കു പറയേണ്ടത് ഓണമാണ് ഓണം ഓണം ചിങ്ങമാസത്തിലാണ് അപ്പോള് എല്ലാവരുടെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ഐശ്വര്യത്തിന്റെയും ഒക്കെ ഒരു ഉത്സവമായിട്ടാണ് ഓണം നമ്മള് കണക്കാക്കുന്നത് ഓണത്തിനായിക്കോട്ടെ ഓണത്തിനിപ്പോള് പണ്ടുകാലത്തെ വച്ചുനോക്കുമ്പോഴത്തേനും പുതിയ കാലങ്ങൾ ഒത്തിരി ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുള്ളൊരു കാലമാണ് അപ്പോഴത്തേനും പഴയകാലത്ത് ഓണം എന്നു പറയുമ്പോള് എല്ലാവരും കൂട്ടുകുടുംബത്തോടുകൂടി ഓണത്തിനുള്ള സദ്യയെല്ലാം തയ്യാറാക്കുകയും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷിക്കുകയും അതുപോലെ ഓണക്കളികളൊക്കെ നടത്തുകയുമൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് വരുമ്പോള് ആർക്കും സമയമില്ലാത്തതു കൊണ്ടു വീടുകളിലൊക്കെ ആണെങ്കില് തന്നെ ഒന്നും രണ്ടു പേരും മാത്രം നിലനിന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോള് അവിടെ ഓണഘോഷം പണ്ടുകാലങ്ങളെ വച്ചുനോക്കുമ്പോൾ ചുരുങ്ങി എന്നു പറയാം പക്ഷേ മറ്റു രീതിയി നോക്കുകയാണെങ്കിൽ ആഡംബരമായിട്ടുള്ള രീതി ഈ കാലത്ത് കൂടി വന്നിട്ടുണ്ട് ആഡംബര രീതിയില് ഓണം ആഘോഷിക്കാറുണ്ട് ഇപ്പോള് സ്കൂൾ വിദ്യാലയങ്ങളായിക്കോട്ടെ അതുപോലെ വീടുകളിലായിക്കോട്ടെ എല്ലാവരും തന്നെ ഓണത്തിന് ഓണത്തിന് ഓണത്തിന് ദിവസം ഓണത്തിനു പത്തു ദിവസം ഉണ്ടെങ്കിലും ആ പത്തു ദിവസവും നല്ല രീതിയില് അത്തമൊക്കെ ഇട്ട് അതെല്ലാം അതെല്ലാം പത്തു ദിവസം അത്തമൊക്കെ ഇട്ടു നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാറുണ്ട് ഓണത്തിനു വിവിധതരം കറികൾ എല്ലാം തയ്യാറാക്കി ഓണസദ്യ മികച്ച രീതിയില് തയ്യാറാക്കാനും ഒക്കെ ജനങ്ങൾ നോക്കാറുണ്ട് അതുപോലെതന്നെ വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ നടത്തപ്പെടാറുണ്ട് ഓണ സമയത്ത് വടംവലി കലം തല്ലി പൊട്ടീര് സുന്ദരിക്കു പൊട്ടുതൊടീല് കുപ്പിയില് വെള്ളം നിറയ്ക്കല് സൂചിയും നൂലും കോര്ക്കല് ഇതെല്ലാം പലതരത്തിലുള്ള കളികൾ സംഘടിപ്പിക്കാറുണ്ട് അത് ഇന്ന പ്രായക്കാര്ക്കെന്നു മാത്രമല്ല എല്ലാ പ്രായക്കാര്ക്കും അവര്ക്കു പറ്റാവുന്ന രീതിയിലുള്ള എല്ലാവരും ഓണം നല്ല രീതിയില് ആഘോഷമാക്കിത്തീര്ക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഓണത്തിനു പുതിയ പുടവ എടുക്കാനും അതുപോലെ പരസ്പരം ബന്ധുവീടുകളിൽ സമ്മാനങ്ങൾ ഓണക്കോടി സമ്മാനങ്ങൾ നൽകാനും പരസ്പരം ഓണം അവധി ഉള്ളതുകൊണ്ടും കുട്ടികള്ക്കാണെങ്കിലും പത്തു ദിവസം അവധി കിട്ടുന്നതുകൊണ്ടും അവർ പരസ്പരം സന്തോഷിക്കാനും ആഹ്ളാദിക്കാനുമുള്ളൊക്കെ സമയം കിട്ടാറുണ്ട് ആ സമയത്തു കുട്ടികളാണെങ്കിൽ പരമാവധി അവർ നല്ല രീതിയിൽ സന്തോഷിച്ച് ഉല്ലസിക്കാറുണ്ട് പിന്നെ എനിക്ക് ക്രിസ്മസ് ക്രിസ്മസ്സെന്നു പറയുമ്പോഴത്തേനും പ്രധാനമായിട്ടും ക്രിസ്ത്യാനികളാണ് കൂടുതലും ക്രിസ്മസ് ആഘോഷിക്കുന്നതെങ്കിലും മറ്റു മതസ്ഥരുടെ വീടുകളിലും ഒക്കെയാണെങ്കിലും നക്ഷത്രങ്ങളൊക്കെ ചാര്ത്താറുമൊക്കെയുണ്ട് അതുപോലെ തന്നെ പുല്ക്കൂടു നിര്മ്മിക്കുകയും ക്രിസ്മസ് ട്രീ അലങ്കരിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട് ക്രിസ്മസെന്നു പറയുമ്പോള് ക്രിസ്ത്യാനികള്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അന്നു മഞ്ഞു മഞ്ഞുകാലത്താണ് അതായത് ഡിസംബർ മാസത്തിലാണ് അപ്പോഴത്തേനും നല്ല തണപ്പുള്ള രാത്രിയില് പ്രധാന കാണാനും അതു നമ്മളെ നമ്മുടെ ജീവിതം ആത്മീയതയിലേക്കു കൊണ്ടു പോകാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈശോയുടെ ജനനം ആ ജനനമാണ് അപ്പോള് ആ ജനനത്തില് എല്ലാവരും സന്തോഷിക്കുകയും പരസ്പരം ഒന്നു രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ ജനിച്ചത് അപ്പോള് ആ ജനനം ജനനം നല്ല രീതിയില് നമ്മൾ അനുസ്മരിക്കുകയും ചെയ്യാറൊക്കെയുണ്ട് പിന്നെ അതുപോലെയാണ് ക്രിസ്മസ്സിനാണെങ്കിലും ഉപരി മറ്റു വിഭവങ്ങളൊക്കെ വിഭവങ്ങൾ സന്തുഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാര്ഥങ്ങളെല്ലാം വീടുകളില് വീടുകളില് തയാറാക്കുകയും ഒരു ബന്ധുവീട്ടുകാരെ നമ്മളെ വീട്ടിലോട്ടു ക്ഷണിക്കുകയും അല്ലെങ്കില് ബന്ധുവീടുകളില് പോയി ഒരുമിച്ചിരുന്നു ഭക്ഷിക്കുകയും സന്ദര്ശിക്കുകയും ചെറിയ ചെറിയ കളികളൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പിന്നീട് പിന്നീട് നമുക്ക് വിഷു അതുപോലെ തന്നെ ഈസ്റ്റർ ഇതെല്ലാം അടുത്തടുത്തു വരുന്ന ഒരു ഇതാണ് അപ്പോള് വിഷുവിനാണെങ്കിൽ മറ്റ് ഹിന്ദു മതസ്ഥര് അവര് വിഷുക്കണി വയ്ക്കുകയും അതുപോലെതന്നെ വിഷു കൈനീട്ടം കൊടുക്കുകയും വിഷുവിനുള്ള വിഷുവട അതൊക്കെ തയ്യാറാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അവരാണെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കു വച്ചൊക്കെയാണ് അവരും ജീവിക്കുന്നത് പിന്നീടു വരുന്നതാണ് ഈസ്റ്റർ ഈസ്റ്റർ വരുന്നുണ്ട് അതായത് ഈസ്റ്ററെന്നു പറയുമ്പോള് ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്യുന്ന അവസരമാണ് അതും ക്രിസ്ത്യാനികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു ആഴ്ചയും കൂടെയാണ് ഈസ്റ്റർ വരുന്ന ആ ഒരു ആ ആഴ്ച വിശുദ്ധവാര ആഴ്ചയെന്നു പറയും അതു ക്രിസ്ത്യാനികള്ക്കേറ്റവും പ്രാധാന്യമുള്ളൊരു ആഴ്ചയും കൂടിയാണ് ആ ആഴ്ചയിലാണെങ്കിൽ എല്ലാ മുഖ്യ മുഖ്യ ദിവസങ്ങളും ക്രിസ്ത്യാനകള് പള്ളിയില് പോവുകയും കുർബാന കാണുകയും അതുപോലെ തന്നെ അത് ആത്മീയ ജീവിതത്തിലേക്കു നമ്മളെ കൊണ്ടുപോകാൻ വിശുദ്ധകുർബാനയോടെ നമുക്കു സാധിക്കുകയും ചെയ്യും ആ പെസഹാ വ്യാഴമെന്നു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുർബാന സ്ഥാപന നടന്ന ഒരു ദിവസമാണ് അന്ന് എല്ലാവരും പള്ളിയിൽ പോയി കുര്ബാന സ്വീകരിക്കുകയും അതുപോലെതന്നെ വീട്ടിൽ പെസഹാപ്പം ഉണ്ടാക്കിയതു സന്തോഷത്തോടി കൂടി കുടുംബനാഥാൻ അതു മുറിച്ചും ബാക്കിയുള്ളവക്കു വിളമ്പുകയും ഒക്കെ ചെയ്യാറുണ്ട് അതെപോലെ തന്നെ ദുഃഖവള്ളി ഈശോയുടെ മരണമാണ് ആ മരണം അതും ക്രിസ്ത്യാനികൾ അത് അനുസ്മരിക്കാറുണ്ട് കുരിശിൻ്റെ വഴി നടത്തി കർമ്മങ്ങളെല്ലാം അതിലും ഭക്തി പൂർവമായി പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നീടു വരുന്നതാണ് ഈശോയുടെ ഉത്ഥാനം ഉത്ഥാന ദിവസം എല്ലാവരും പള്ളിയിൽ പോവുകയും പരസ്പരം ഐക്യത്തോടുകൂടി പെരുമാറുകയും അതുപോലെ തന്നെ കുർബാനയില് പങ്കെടുക്കുകയും എവിടെയാണെങ്കിലും ഈസ്റ്റർ മുട്ട വിതരണം ചെയ്യാറുണ്ട് പള്ളികളിലൊക്കെ അ വെളുപ്പിനെ കുർബാനയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയൊക്കെ ഈസ്റ്റര് മൊട്ടയും കട്ടൻ കാപ്പിയൊക്കെ വിതരണം ചെയ്യാറൊക്കെ ഉണ്ട് അതെല്ലാം ഒരൈക്യത്തിന്റെ പ്രതീകമായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പിന്നീട് മറ്റ് ഉത്സവങ്ങളും അമ്പലങ്ങളിലൊക്കെ ആണെങ്കില് ഉത്സവങ്ങളും വരാറുണ്ട് പള്ളികളിലൊക്കെ ആണെങ്കിൽ തിരുന്നാളുകള് വരാറുണ്ട് ഈ സമയത്തെല്ലാം എല്ലാ എല്ലാ മതസ്ഥരും ഒരുമിച്ച് ഒരുമയോടു കൂടി തന്നെ ഉത്സവങ്ങളായിക്കോട്ടെ അതുപോലെ തിരുന്നാളുകളായിക്കോട്ടെ എല്ലാം ആ ഭംഗിയോടുകൂടി മുന്നോട്ടു കൊണ്ടുപോവാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോള് കുമരകത്ത് കുമരകത്തെ പള്ളികളിലൊക്കെ ആണെങ്കിലും റാലികളൊക്കെ അതായത് പ്രദക്ഷിണമൊക്കെ നടത്തുമ്പോഴത്തേനും മറ്റു മതസ്ഥരും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുകയും അവർ ഭക്തിപൂർവ്വം പ്രദക്ഷിണത്തെ കാണുകയും പിന്നെ അവരും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരൈക്യത്തോടുകൂടിയൊക്കെയാണ് പ്രദേശത്തെ എല്ലാ ഉത്സവങ്ങളും കൊണ്ടാടാറുള്ളത്